ഹലോ ആ ഇച്ചിരി സ്വർണം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇന്നത്തെ വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത് നിലവാരമൊക്കെ ഓരോ ദിവസം മുന്നോട്ടു പോവല്ലേ അപ്പം കല്യാണ ആവശ്യമല്ല നമുക്ക് ഇച്ചിരി സ്വർണം വേണം എടുക്കണമെന്നൊരു ആഗ്രഹം ചെറിയ പൈസ കയ്യിൽ വന്നു അപ്പോൾ സ്വർണം എടുത്തു വച്ചേക്കാം ആ എച്ചെങ്കി ഇതെങ്ങനെയാണ് ഇതിൻ്റെ വില നിലവാരം പഴയതിന് നിങ്ങളെങ്ങനാണ് ഈടാക്കുക

ആ അതിപ്പോൾ ഞാനിപ്പോൾ നോക്കാം പഴയത് നമ്മൾ ചോദിച്ചെന്നെയുള്ളൂ ഒരു നെക്ലൈസും ചെയിനും ആ പിന്നെ നമ്മുടെ കയ്യിൽ ഇതിനനുസരിച്ച് ചെയിനൊരു ഒരു ഒന്നെ ഒരു പവൻ വേണ്ടിവരണം കാരണം കട്ടിക്ക് കിടന്നാലല്ലേ പെട്ടന്ന് പോകാതിരിക്കാൻ പറ്റുള്ളൂ പോകാതിരിക്കുള്ളൂ അല്ലേ നമ്മൾ അ അ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല നെക്ലൈസ് നെക്ലൈസ് ഇല്ലില്ല ഒത്തിരി സ്റ്റോൺല്ല സ്റ്റോൺ അധികം വേണ്ട എന്നാൽ വേണം നമുക്കൊരു ഷോ ഭംഗിയായിരിക്കാം നെക്ലൈസ് അല്ലേ അപ്പോൾ അത് കാണുന്നവർക്ക് ഒരു ഭംഗി ആ അതും കുഴപ്പമില്ല അത് രണ്ടും ഒത്തിരി നമ്മൾ എടുക്കുന്നില്ല കുറച്ചല്ലേ അപ്പോൾ അതുള്ളത് ഭംഗിയായി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒന്നര പവനോ അതിൽ കൂടുതലോ കുഴപ്പമില്ല

ആ

അതെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഉദ്ദേശിച്ച് വന്നതാണ് നമുക്കൊത്തിരി പരസ്യങ്ങൾ ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ഐറ്റംസുണ്ടല്ലോ ആ അല്ലാതെ പെയ്മെൻ്റും ചെയ്യാം പേയാട്ട് ചെയ്യാം അപ്പോൾ കാശ് കുറച്ചുണ്ട് അത് എന്നിട്ട് അത് പോരാത്തത് അല്ലാതെയും ചെയ്യാം അ അതെ അതെ ട്രാൻസ്ട്രാറ്റ് ചെയ്യാം ആ ആ അതെ അതെ ആ അതെ തീർച്ചയായിട്ടും വലിയ ഉപകരം ആ ആ തീർച്ചയായിട്ടും വലിയ ഉപകാരമായിരിക്കും താങ്ക് യൂ ബൈ